ഹലോ ഹലോ ഹലോ കേള്ക്കുന്നില്ലേ ഹലോ ആ ഇത് കെ എസ് ആർ ടി സിയിലേ നാഗര്കോവില് ബസ്സില് യാത്ര ചെയ്ത ഒരു പാസഞ്ചറാണ് വിളിക്കുന്നത് അതെ അതെ അതെ അതെ ആ എന്റെ പേര് ശശീന്ദ്രന് ആ ബസ്സിലെ ഈ മഴയത്ത് മുകളിൽ ലഗ്ഗേജ് വയ്ക്കുന്ന ഭാഗമുണ്ടല്ലോ അതിനകത്തൊക്കെ മൊത്തം കീറി പഞ്ചറായിട്ട് ഇരിക്കുകയാണ് മഴ പെയ്യുമ്പോള് മുകളിലൂടെ വെള്ളം ഇറങ്ങി താഴത്തെ സീറ്റിൽ മുഴുവനും നനയുകയാണ് പാസ്സഞ്ചര്ക്ക് ഇരിക്കാന് പറ്റുന്നില്ല അത് മുകളിൽ കിടക്കുന്ന എന്തോ സാധനത്തിൽ ഇരുമ്പ് കറയൊക്കെ കയറി പല നിറത്തിലുള്ള ഒരു വെള്ളമാണ് ഒഴുകി വരുന്നത് അത് അടിയന്തരമായിട്ട് അതെ അതെ നാഗര്കോവിൽ ഏഴ് പത്തിന് തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ നിന്ന് തിരിച്ച ബസ്സാണ് നാഗര് കോവിലിലേക്ക് അതൊന്നു നോക്കി ശരിയാക്കാൻ കൊണ്ട് വേണ്ട നടപടികൾ എടുക്കണം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു